എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഞാൻ എന്ത് പ്രശ്നം എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ ഭയങ്കര ധൈര്യത്തോടെ നേരിട്ട് ആ പ്രശ്നങ്ങളെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ സോൾവ് ചെയ്യും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒരു കുഴപ്പവും ഇല്ലാണ്ട് ഭയങ്കര ധൈര്യത്തോടു മുന്നോട്ട് നിൽക്കുന്ന ഒരാളാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ക്ഷമയോടെ ബാക്കി ഉള്ളവർക്ക് ആണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ഭയങ്കര ക്ഷമയോടെ കേട്ടുനിൽക്കും കേട്ടുനിൽക്കുക മാത്രമല്ല ഞാൻ ഭയങ്കരമായിട്ട് കാര്യക്ഷമതയോടെ എല്ലാ പ്രോബ്ളവും എന്ത് പ്രശ്നം മുന്നിട്ടു വന്നാലും എനിക്ക് അത് നേരിടാൻ പറ്റും എന്നൊരു ധൈര്യം എനിക്ക് ഉണ്ട് അതേപോലെ തന്നെ അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ സങ്കടങ്ങളും എന്തൊക്കെ പ്രശ്നം എന്ത് പ്രശ്നം വാന്നാലും നമ്മൾക്ക് ധൈര്യമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ അല്ല നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതല് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളൊരു കുട്ടി തന്നെയാണ് ഞാനും എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ധൈര്യത്തോടെ ആരെയും പിന്മാറിപോകാണ്ട് ഭയങ്കര ധൈര്യത്തോടെ മുന്നോട്ട് നിന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ധൈര്യത്തിൽ എല്ലാം കേട്ട് എനിക്ക് എനിക്ക് അത് പ്രശ്നങ്ങള് മറികടക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ അത് എല്ലാം മറികടന്നിട്ട് ഞാൻ ഭയങ്കര മുന്നോട്ട് എല്ലാ പ്രോബ്ളവും സോൾവ് ചെയ്തിട്ട് ഇതുവരെ എൻ്റെ ലൈഫിൽ എത്തിയിട്ടുണ്ട് പിന്നെ എൻ്റെ ബലഹീനത എന്ന് പറയുന്ന സമയത്ത് ഞാൻ കുറച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇമോ ആൾക്കാരോട് ഇമോഷണൽ അറ്റാച്ഡ് ആകുന്ന ഒരാളാണ് എന്തൊക്കെ ആയാലും എന്നോട് സിംപതിയോടെ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനോട് ഭയങ്കര ഞാൻ അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കും പക്ഷെ അങ്ങനെ വരുന്ന എല്ലാ ആൾക്കാരും സത്യസന്ധരോ സ്നേഹമുള്ളവരോ ആയിരിക്കില്ല അവരൊക്കെ അവരവരുടെ കാര്യം കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ മാത്രമായിരിക്കും അങ്ങനെ കുറെ ആൾക്കാർ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ബലഹീനതയായി തോന്നിട്ടുള്ളത് ഭയങ്കര സിംപതിയാണ് എല്ലാരോടും സഹാനുഭൂതി സഹാനു സഹതാപം മാത്രമാണ് എനിക്ക് എപ്പോഴും ഉണ്ടാകാറ് ആ സഹതാപം കൊണ്ട് എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ വന്നാൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഭയങ്കര ധൈര്യത്തോട് എല്ലാ പ്രശ്നവും നേരിട്ടിട്ടേ ഉള്ളു ഞാൻ ഇവിടെ പഠിക്കുമ്പോഴാണെങ്കിലും എൻ്റെ ലൈഫിൽ ആയാലും എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് എൻ്റെ അടുത്ത് ആരേലും വന്ന് കരയുകയും എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് സങ്കടം പറയുകയും ചെയ്താൽ എനിക്ക് അപ്പോൾ അവരോട് സഹതാപം തോന്നും അവരോട് സഹതാപം തോന്നിയിട്ട് അവർക്ക് വേണ്ടത് എല്ലാം ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് പക്ഷെ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ശെരിക്കും ഉള്ള സ്വഭാവം നമ്മൾ അറിയില്ല ഭയങ്കരമായിട്ട് അവര് കള്ളത്തരം കാണിക്കുകയും നമ്മളുടെ കയ്യിൽ നിന്നും സഹതാപം സ്നേഹം പറ്റി പിടിക്കാനും നമ്മുടെ കയ്യിൽ നിന്ന് കാര്യം കാണാൻ വേണ്ടി മാത്രം വരുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് ഭയങ്കര സഹതാപം കാണിക്കുന്നതാണ് ആൾക്കാരെ മനസിലാക്കാണ്ട് അവരോടു ഒപ്പം നിന്ന് പ്രവർത്തിക്കും ആൾക്കാർ അറിയാണ്ട് ഞാൻ വേ വേഗം അവരുടെ കാര്യത്തിൽ ഇടപെടുകയും അവർക്ക് വേണ്ട പ്രശ്നങ്ങൾ സോൾവ് ആക്കി കൊടുക്കുകയും എല്ലാം ഞാൻ ചെയ്യും അതൊക്കെകയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും എൻ്റെ അത് കൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ധൈര്യമായിട്ട് വരും ബലഹീനത എന്ന് പറയുന്നത് സഹദാനുബ സഹതാപം മാത്രമാണ് ഏതേലും ആൾക്കാരാണെങ്കിൽ ആരെങ്കിലും ആണെങ്കിൽ എന്നോട് എന്തേലും കാര്യം വന്ന് പറയുവാണേൽ ഞാൻ ഭയങ്കര ഫീലായിട്ട് ഞാൻ അവരുടെ ഒരാളായിട്ട് മീൻസ് അവരുടെ പ്രശ്നം എൻ്റെ പ്രശ്നമായി കണ്ടിട്ട് ഞാൻ എപ്പോഴും അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ നടക്കാറുണ്ട് പക്ഷെ എനിക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആർക്കും എൻ്റെ ഞാൻ ഈ സഹ സഹായിച്ച ആൾക്കാരൊന്നും എനിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിന്ന് കണ്ടിട്ടില്ല അതാണ് എനിക്ക് ഭയങ്കര വിഷമം മാത്രമാണ് എനിക്ക് ആൾക്കാരെ സഹായിക്കുന്ന പരുപാടി എനിക്ക് ഞാൻ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ എന്നാലും ആരെങ്കിലും വന്ന് കരയുകയും എന്തേലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം ആവും ഞാൻ അവരുടെ എല്ലാ പ്രശ്നത്തിനും കൂടെ നിൽക്കുകയും അവരുടെ എല്ലാം ഒപ്പം നിൽക്കുകയും ഞാൻ ചെയ്യും അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും ആർക്കെങ്കിലും എന്തേലും പറ്റിയാലോ അല്ലേൽ എന്തേലും കുടുംബത്തില് പിന്നെ ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മനസികമായിട്ടോ എന്തൊക്കെ പ്രോബ്ലം വന്നാലും ആരൊക്കെ നമ്മളെ എതിർത്താലും ഞാൻ ധൈര്യത്തോടെ മുന്നോട്ട് നിൽക്കും എനിക്ക് സത്യം എന്താണ് ഞാൻ ഇനി ആരായികൊട്ടെ നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരോ ആരും ആയിക്കോട്ടെ സത്യം സത്യമായിട്ടും തുറന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ എനിക്ക് കള്ളം പറയുന്നുണ്ടേൽ എനിക്ക് താൽപര്യമില്ല ആരേലും ചെയ്തത് ശെരിയായിട്ടുള്ള കാര്യം ആണെങ്കിലും അത് ശെരിയാണെന്നും തെറ്റായിട്ടുള്ള കാര്യം തെറ്റാണ് എന്നും മുഖത്ത് നോക്കി പറയാൻ ഉള്ള ധൈര്യം എനിക്ക് ഉണ്ട് അത് കൊണ്ട് തന്നെ കുറെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടെങ്കിലും എനിക്ക് സത്യത്തിൻ്റെ ഭാഗത്തെ ഞാൻ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എല്ലാം നന്നായിട്ടേ നടന്നിട്ടുള്ളൂ വീട്ടുകാരാണെങ്കിൽ അവര് തെറ്റാണ് ചെയ്തത് എങ്കിൽ തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി പറയാൻ ഉള്ള ധൈര്യം എനിക്ക് ഉണ്ട് അങ്ങനെ ചെയ്യും തോറും എല്ലാവർക്കും എന്നോട് ഉള്ള ഒരു സ്നേഹം എനിക്ക് മനസിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലഹീനതയും ഏറ്റവും വലിയ ശക്തിയും എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശക്തി ഞാൻ ധൈര്യവും ധൈര്യശാലിയും ഏറ്റവും വലിയ ബലഹീനത എന്ന് പാറയുന്നത് സഹ താപവും ആണ്